ആ എന്താണ് ടീച്ചറേ വിളിച്ചത് ആ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിള്ളേർ ഭയങ്കര ബഹളമാണ് എന്താണ് ടീച്ചറേ ആ അലന് എന്നാ പറ്റിയത് ആണോ ആ അവൻ കുറച്ച് ദിവസമൊന്നും ക്ലാസ്സിൽ ഇല്ലായിരുന്നു ഞാനും ശ്രദ്ധിച്ചിരുന്നു പിന്നെ പിള്ളേർ അല്ലേ എന്തെങ്കിലുമൊക്കെ വയ്യായ്ക കാണുമായിരിക്കും ആ അവന്റെ വീട്ടിലോട്ട് വിളിക്കണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ആ വിളിക്കാമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലല്ലേ അവന്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പം അവന് കഴിഞ്ഞ ദിവസം ഒട്ടും വയ്യായിരുന്നു എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പറയാം പറയാം ഉം ആ ഫ്രണ്ട്സ് ഒന്നും കുഴപ്പമില്ല അവനെ സഹായിക്കുന്നൊക്കെ ഉണ്ട് നോട്ട് ഒക്കെ എഴുതാനില്ലേ കുറേ കുറച്ച് ദിവസം ആബ്സെൻറ് ആയതിന്റെ ഒക്കെ അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ക്ലാസ് ടൈമിൽ ആണെന്നേ ഉള്ളൂ ആ എന്റെ ക്ലാസ്സിലും കുഴപ്പമില്ല എന്നാലും ചെറിയൊരു ഉഴപ്പൊക്കെ ഉണ്ട് ആ അവന് മാർക്ക് ഒന്നും കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല ആവറേജ് രീതിയിലൊക്കെ അവൻ പഠിക്കുന്നുണ്ട് ആ അതൊക്കെ വരാറുണ്ട് ഇല്ല അവന്റെ പേരൻറ്സിന് അവനെക്കുറിച്ച് വലിയ കുഴപ്പം ഒന്നുമില്ല വയ്യാത്തതുകൊണ്ടായിരിക്കും കൂട്ടുകാർ അങ്ങനെ അല്ലേ പറഞ്ഞത് ഏതായാലും വീട്ടിൽ വിളിക്കാം പേരൻറ്സ് മീറ്റിങ്ങിന് എല്ലാ പേരൻറ്സിനെയും വിളിക്കുന്ന കൂട്ടത്തിൽ വിളിക്കാം അവർ എന്തായാലും വരണമല്ലോ ആ ഓക്കെ